സ്ഥലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും മൊത്തത്തിലുള്ള കലയും സംസ്കാരവും സംരക്ഷിക്കാൻ പ്രാദേശിക കലാ കാരന്മാർ ശ്രമിക്കുന്നത് സ്റ്റേജിലൂടെ പിന്നെ വിദേശികൾക്ക് വിദേശത്തുള്ളവർക്ക് കാണികളായി കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അമ്പലങ്ങളിൽ പിന്നെ ഓരോ ഓരോ പരിപാടികൾ കലോത്സവ ആ അങ്ങനെയൊക്കെയാണ് പുതു പ്രാദേശിക കലാകാരന്മാർ ശ്രമിക്കുന്നത് കാണാൻ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മെയിൻ ആയിട്ട് ഓരോ പരിപാടി അങ്ങനെയുള്ള വരുമ്പോൾ